പണിയെടുത്തോണ്ടിരിക്കുന്നത് എല്ലാവർക്കും അതായത് കൂടുതലാൾക്കാർക്കും മെയിൻ എന്താണ് വിഷയംന്ന് വെച്ചാൽ പട്ടിണിയില്ലാണ്ട് ജീവിക്കുക നാണം മറയ്ക്കാൻ കുറെ കുറച്ച് ഡ്രെസ്സ് മേടിക്കുക പിന്നെ പിന്നെന്താന്നു വെച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെയുണ്ടെങ്കിൽ അവരെ കെട്ടിച്ചുവിടുക അവരെ നല്ലോണം പഠിപ്പിക്കുക അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെയാണല്ലോ പൊതുവേ എല്ലാവർക്കും അങ്ങനെയുള്ളൊരു ലക്ഷ്യമാണ് പിന്നെ നമുക്കെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കുക അതായത് ആരോടും യാചിക്കാണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പൈസയുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളോട് ചോദിച്ച് മേടിക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു ലക്ഷ്യമായിരിക്കും കൂടുതലെല്ലാവർക്കും പിന്നെന്നു വെച്ചാൽ വലിയ വലിയ ജോലിയൊക്കെ കിട്ടുമ്പം നമുക്ക് വലിയ ഒരു വീട് കെട്ടണംന്നും അതായത് സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോൾ നമ്മുടെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനാവുമ്പോൾ നമ്മളെന്തു ചെയ്യും ആ വലിയ വലിയ വീ വലിയ വീട് വീട് കെട്ടണംന്നോ അങ്ങനെ സ്ഥലം മേടിക്കണംന്നും അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുള്ളവർ അങ്ങനെ ലക്ഷ്യം ഉള്ളവർ ഉണ്ട് പിന്നെ അങ്ങനെയുള്ളവരൊക്കെയാണ് ദൂരെ രാജ്യത്തൊക്കെ പോയിട്ട് പിന്നെ ജോലി ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ദൂരെയൊക്കെ പോകുന്നവർക്കൊക്കെ മെയിനായിട്ട് ഒരു ലക്ഷ്യമുണ്ടാകും ഒന്നുല്ലെൽ കടം തീർക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു വീട് കെട്ടാനായിരിക്കും അങ്ങനെയൊക്കെ